വയനാട് ജില്ലയിലെ പ്രധാന ബിസിനസ്സുകളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് തുണികടയുണ്ട് പിന്നേ മാളുകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ മാളുകളാകെ ഒന്ന് രണ്ടണ്ണമേ ഉള്ളൂ അതും വലിയ രീതിയില് വലിയ ഷോപ്പിംഗ് മാളുപോലെയൊന്നല്ല അപ്പം ഈ ബോട്ടിക്കുകളൊക്കെ അവിടെയും ഇവിടേക്കെ തുടങ്ങിയതുകൊണ്ട് ആൾക്കാർക്ക് അത്യാവശ്യം പിടിച്ചുനില്ക്കാനൊക്കെ പറ്റുന്നൊണ്ട് കാരണമെന്താന്നു വെച്ചു കഴിഞ്ഞാല് എല്ലാവരും ഡ്രസ്സെടുക്കാനൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് നോക്കുന്നത് അതായത് ഇപ്പൊൾ ലേഡീസിനാണെങ്കില് ലേഡീസിൻ്റെ മാത്രായിട്ടുള്ള ത്രസ്സ് ഡ്രസ്സെടുക്കാനുള്ള ഷോപ്പ് ജെൻസിനാണെങ്കി ജെൻസിൻ്റെ മാത്രം ഇപ്പം അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലാണ്ട് മിക്സഡായിട്ടൊന്നും അങ്ങനെയിപ്പം ആരും അങ്ങനെ തുടങ്ങുന്നില്ല അപ്പം അങ്ങനെയും ബിസിനസ്സുകള് തുടങ്ങുന്നുണ്ട് പിന്നെ ഗൈഡ് ഗൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അതായത് ഇപ്പം നമുക്കെവിടേങ്കിലും വയനാട്ടിലെവിടേങ്കിലും കറങ്ങാൻ പോകണമെങ്കില് ആ ഗൈഡിനെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാം പിന്നേ ഫണ്ടിങ്ങ് സുരക്ഷിതമാക്കാനൊക്കെ നമ്മള് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഏ നോക്കിക്കഴിഞ്ഞാല് വലിയ കുഴപ്പമില്ലാത്ത രീതിയില് വയനാട്ടില് എന്തെങ്കിലൊരു ആ എന്താ പറയുക സംരംഭം തുടങ്ങി നമുക്ക് ജീവിച്ചുപോകാം